എൻറ്റൊരു ബാല്യകാല സ്മരണ എന്താന്ന് വച്ചാൽ എൻ്റെ സമ്മർ വെക്കേഷൻ്റെ സമയത്ത് എൻ്റെ ഏട്ടനും എനിക്കും സമ്മർ വെക്കേഷനായിരുന്നു പക്ഷേ ഏട്ടനൊരു ക്യാമ്പ്ണ്ടായിരുന്നു എറണാകുളത്ത് വച്ചിട്ട് അപ്പം പത്ത് ദിവസം അവിടെ പോയിട്ട് നിക്കണം എൻ്റെ അമ്മക്കും അച്ഛനാണെങ്കിൽ ജോലീണ്ട് അപ്പം അവർ രാവിലെ പോയിട്ടവർ രാത്രി എത്തുള്ളൂ അതുകൊണ്ട് ആ നേരം മൊത്തം രാവിലെ തൊട്ട് വൈകുന്നേരം വരേക്കും രാത്രി വരേക്കും ഞാൻ വീട്ടിൽ ഒറ്റക്കാവുമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ എന്നെ വീട്ടിൽ നിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അവർ പറഞ്ഞു ഒന്നെങ്കിൽ അമ്മേടെ വീട്ടി പോവാൻ അല്ലെങ്കിൽ വല്യച്ഛൻ്റെ വീട്ടിൽ പോവ്വാന്ന് വല്യച്ഛൻ്റെ വീട് ട്രിവാൻഡ്രം എൻറ്റമ്മടെ വീട് തൊട്ടപ്പറത്തും ആയോണ്ട് ഞാൻ വല്യച്ഛൻ്റെ വീട്ടിൽ പോയാൽ മതീ പറഞ്ഞു അപ്പന്നെ കൂട്ടാൻ വേണ്ടീട്ട് വല്യച്ഛൻ ട്രിവാൻഡ്രത്ത്ന്ന് വന്നു എന്നിട്ട് എന്നെ കൂട്ടീംക്കൊണ്ട് പോയി പോണ വഴിക്കാണ് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങിയത് എന്താന്ന്ച്ചഴിഞ്ഞാൽ അവിടെ കസിൻസൊന്നും ഉണ്ടായിരുന്നില്ല കസിൻസിന് ഇതേപോലെ ക്ലാസ്സുണ്ടായിരുന്നു അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരേക്കും ഞാൻ വല്യമ്മേടേം വല്യച്ഛൻറ്റെം കൂടെ മാത്രം ഇരിക്കണം അപ്പെനിക്ക് കളിക്കാൻ ആരുണ്ടാവില്ല എന്നക്കെ പറഞ്ഞ് കുറെ ടെൻഷനടിച്ചു അവർ വൈകുന്നേരം എത്തുമെങ്കിൽ കൂടി അന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുല്ലോ ഒറ്റക്ക് എനിക്ക് ബോറടിക്കുലോന്നൊക്കെ വിചാരിച്ച് എനിക്ക് പോകുമ്പം നല്ല വിഷമമുണ്ടായി എന്നിട്ട് ഞാനവിടെ ട്രിവാൻഡ്രത്ത് എത്തി കഴിഞ്ഞ ഫസ്റ്റൊരു ദിവസക്കെ ഞാനാ റൂമിൻറ്റുള്ളിൽ ഞാൻ വീട്ടിൻറ്റുള്ളിൽ ഒരു ബുക്ക് വായിച്ച് തീർത്തു ടി വി കണ്ടിരുന്നു ആ ദിവസമൊക്കെ നല്ല ബോറടിച്ചു അടുത്ത ദിവസം അപ്പുറത്തെ വീട്ടിലെ ഒരു ചെക്കൻ വന്നിട്ട് എന്നോട് ചോദിച്ച് ബോള് കളിക്കാനുണ്ടോ ചോദിച്ചു അപ്പം ഞാൻ ആ കളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ബോള് കളിച്ചു പാർക്കിലക്കെ പോയി കളിച്ച് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഗ്രൗണ്ട്ണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിച്ചു അവിടെ പോയപ്പോൾ ആ ചെക്കനെനിക്ക് വേറെ കുറെ പേരെ പരിചയപ്പെടുത്തി തന്നു അന്ന് ഞാൻ വിചാരിച്ചു ആ ഇതോടെ തീരും ജസ്റ്റ് കളിക്കാൻ വേണ്ടീട്ടായിരിക്കും തീരും ഇതോടെ ഞാൻ വീട്ടിലെക്ക് തിരിച്ച് പോകുമ്പളേക്കും ഇതൊക്കെ തീരുന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ ഇപ്പോൾ അന്ന് വീട്ടിലെത്തിയിട്ട് അന്ന് ഞങ്ങൾക്ക് ഫോണൊന്നുണ്ടായിരുന്നില്ല പക്ഷേ അതിനു ശേഷം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വീണ്ടും പോയി എൻ്റെ വീട്ടുകാരുടെ കൂടെ അന്ന് ഞാൻ അവനെ വീണ്ടും കണ്ടു എന്നിട്ട് ഞങ്ങൾ വീണ്ടും പണ്ടത്തെ പോലെ സംസാരിച്ചു അപ്പമെനിക്ക് ഫോണെക്കേയി പിന്നെ ഞങ്ങൾ നല്ല സംസാരമായി ഇപ്പം എൻ്റെ കൂടെ എൻറ്റൊരു നല്ല കൂട്ടുകാരായിട്ട് അതെ അന്ന് കളിച്ചിട്ടുള്ള കുറെ പേറുണ്ട് അപ്പം ഇതാണെൻ്റെ ഏറ്റവും വലിയ ബാല്യകാല സ്മരണ